കഴിഞ്ഞ ആഴ്ച്ച സിറോണ എന്ന കമ്പനിയുടെ ഒരു ഫേസ് ക്രീം വാങ്ങിയായിരുന്നു ഇത് വില കുറവ് കണ്ടിട്ട് വാങ്ങിയതാണ് അത്യാവശ്യം നല്ല ഒരു ഓഫർ ഉണ്ടായിരുന്നു പക്ഷെ ഇതിന് ഒരു വിധത്തിലുള്ള റിസൾട്ടും തന്നില്ല പോരാത്തതിന് എൻ്റെ മുഖത്തിന് സൈഡ് എഫക്ട്സ് കുറേ കൂടി മുഖത്ത് കുരു കൂടാൻ തുടങ്ങി ഓരോരോ ചില ചില ഭാഗത്ത് കറുപ്പ് വരാൻ തുടങ്ങി പിന്നെ

ആ ഒരു പൈസക്ക് അത് ഒരിക്കലും വർത്ത് അല്ല